ജോലി ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന സംഘർഷങ്ങളും പ്രയാസങ്ങളും സാഹചര്യങ്ങളും നമ്മൾ എങ്ങനെ തരണം ചെയ്യുന്നു എന്നു ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു കൈ അടിച്ചാൽ മാത്രമേ സൗണ്ട് കേൾക്കില്ല രണ്ടു കൈ അടിച്ചാലേ സൗണ്ട് കേൾക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ പരമാവധി എല്ലാവരുമൊന്നു ഒതുങ്ങി നമ്മുടെ ജോലി വൃത്തിയായി ചെയ്യാൻ വേണ്ടി നോക്കുക പിന്നെ ഇതുപോലെ എന്തെങ്കിലും സംഘർഷങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ കാര്യം ക്ലിയറാക്കുക നമ്മളെന്താണോ ചെയ്തത് അതുമാത്രം നമ്മുടെ ഭാഗത്താണ് ഫോൾട്ട് എങ്കിൽ അത് അങ്ങ് അംഗീകരിച്ചു കൊടുക്കാനുള്ള മനസ്സ് നമ്മൾക്ക് വേണം ഇപ്പം പ്രയാസമായിക്കോട്ടെ ഇപ്പോൾ ബാത്ത് റൂം അങ്ങനെ അസൗകര്യങ്ങൾ ആണെങ്കിൽ നമ്മളവരോടു മാനേജറിനോടു സംസാരിക്കുക സംസാരിച്ച് അവരെന്തെങ്കിലും ഇതാക്കുന്നില്ലെങ്കിൽ നമുക്ക് ലേബർ കംപ്ലയിന്റ് കൊടുക്കാം കാരണം നമ്മൾ ഒരു സ്ഥാപനത്തിൽ വർക്കു ചെയ്യുമ്പം അവിടെ നമ്മൾ ഹൺഡ്രഡ് പെർസെന്റേജ് നമ്മൾ എന്തായാലും കൊടുത്തിരിക്കണം ഇപ്പോൾ ഒരു ജോലി നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ഹൺഡ്രഡ് പെർസെന്റേജ് നമ്മൾ അവിടെ കൊടുക്കണം അങ്ങനെ കൊടുത്ത് വർക്ക് ചെയ്യുക അത് കഴിഞ്ഞു നമുക്കെന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവുകയാണെങ്കിൽ ലേബർ കംപ്ലൈന്റോ അല്ലെങ്കിൽ എന്താ പറയുക അവരുടെ മാനേജറുമായിട്ട് നമ്മൾ സംസാരിച്ചു നോക്കുക എന്തായാലും സംസാരിച്ചു തീരാവുന്ന പ്രശ്നങ്ങളെ ഉണ്ടാവുള്ളൂ അതുപോലെ സംഘർഷങ്ങളൊക്കെ ഉണ്ടാവുമ്പം നമ്മടെ ഭാഗത്താണ് ഫോൾട്ട് എങ്കിൽ നമ്മൾ അംഗീകരിച്ചു കൊടുക്കാനുള്ള മനസ്സും അത് നന്നായി ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയും നമ്മൾ കൊണ്ടുവരേണ്ടത് ഉണ്ട് അതുകൊണ്ട് അങ്ങനെ ജോലി സംഘർഷങ്ങളൊക്കെ അങ്ങനെ പരമാവധി മാറ്റാവുന്നതാണ്